മറ്റ് ഗ്രഹ ഗ്രഹങ്ങളിൽ ബാഹ്യ ജീവനുണ്ടോയെന്നു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചെനിക്ക് വലിയ അറിവ് ഒന്നുമില്ല എന്നാലും നമ്മുടെ എന്താ പറയുക ഓരോ റിസർച്ച് പ്രകാരം നമ്മൾ ഓരോ റിസർച്ച് പ്രകാരം അങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ പറയാൻ പറ്റില്ല ഇപ്പം എന്താ സിദ്ധാന്തങ്ങൾ നമ്മൾ ഇപ്പം എന്താ പറയുക ഓരോ ഗ്രഹങ്ങൾക്കും ജീവനുണ്ട് ജിവനില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് ഓരോ റിസർച്ച് പ്രകാരം കാണുന്നതാണ് ഇതൊക്കെ അപ്പോൾ എന്താ പറയുക ഇതിനെ കുറിച്ച് ഗ്രഹങ്ങളെ കുറിച്ച് ജീവനുണ്ടോ അവർക്ക് ബാഹ്യ ജീവൻ ഉണ്ടോ അതിനെ കുറിച്ചെനിക്ക് വലിയ അറിവ് ഒന്നുമില്ല ഇങ്ങനെ കേട്ട് പരിജയം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഓരോ സൈന്റിസ്റ്റുകൾ റിസർച്ച് നടത്തുമ്പോളൊക്കെ ഓരോ ഗ്രഹത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അവർ കണ്ട് പിടിക്കുന്നുണ്ട് അതിൽ ചൊവ്വ ഓരോ ഗ്രഹത്തിനും ഓരോ കാര്യങ്ങളും അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങളും ഓരോ റിസർച്ച് ചെയ്തു അവർ ഓരോന്ന് കണ്ടു പിടിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള കേട്ട് അറിവ് മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് വെച്ചാൽ ബാഹ്യ ജീവൻ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഗ്രഹങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ ഉണ്ടാകില്ല എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവ് ഒന്നുമില്ല അതുകൊണ്ടും അതായത് കറക്റ്റ് എന്താ പറയേണ്ടതെന്നും എനിക്ക് അറിഞ്ഞു കൂട അപ്പോൾ അതിൻ്റെ കേട്ടറിവ് മാത്രമേ എനിക്ക് ഉള്ളൂ പിന്നെ ഓരോ റിസർച്ച് നടത്തുന്ന പ്രകാരം മുകളിൽ ഓരോ കാര്യങ്ങളും പുതിയത് പുതിയത് കണ്ടു പിടിച്ച് വരുന്നുണ്ട്